ഹലോ ഗുഡ് മോർണിംഗ് മേഡം ആ പറഞ്ഞോളൂ അതേ അതേ അതേ പറഞ്ഞോളൂ മാഡം

ആ ആ ആ എത്ര പേർക്കുള്ളതാണ് മാഡം ആ എന്ത് ആ ആർക്ക് എത്ര അല്ല എത്ര പേർക്കുള്ളതാണ് അഞ്ഞൂറ് പേർക്കുള്ളത് ആ ആ അപ്പോൾ അരി ഒരു ഏതാണ് എടുക്കേണ്ടത് വെള്ള വെള്ള മട്ടയാണോ എടുക്കേണ്ടത് അതോ പിന്നെ സാധാമട്ടയാണോ എടുക്കേക്കണ്ടത് ആ വെള്ള മട്ട ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നല്ല അരി നോക്കി എടുക്കാം പിന്നെ പായസം ഇല്ലേ മാഡം

ആ ആയിക്കോട്ടെ ആ പാൽപ്പൊടിയാണോ അതോ പാലാണോ ഉപയോഗിക്കുന്നത് ആ ആ ആ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ആ പിന്നെ പച്ചക്കറികൾ പയറു തോരനുള്ളത് അവിയലിനുള്ളതൊക്കെ എടുക്കണം അല്ലേ ആ മുരിങ്ങക്കായ മുരിങ്ങക്ക ഇപ്പോൾ ഇത്തിരി വില കൂടിയിട്ടുണ്ട് സീസണല്ലാത്തതുകൊണ്ട് മുരിങ്ങക്കായക്ക് ഇപ്പോൾ ഇത്തിരി വില കൂടിയിട്ടുണ്ടേ കുഴപ്പമില്ലല്ലോ മാഡം പച്ചക്കറികൾക്ക് ഇപ്പോൾ എന്നു വച്ചാൽ വില അങ്ങോട്ടും ഇങ്ങോട്ടും കേറ്റ കുറച്ചിലായി നിക്കുന്നതു കൊണ്ട് പച്ചക്കറിക്ക് ചിലതിനൊക്കെ ഇത്തിരി റെയിറ്റ് റേറ്റ് കൂടുതലുണ്ട് കാരറ്റൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് വരുന്നത് അപ്പോൾ പച്ചക്കറിക്ക് തന്നെ ഒരു ആയിരത്തി ആ രണ്ടായിരം രൂപയുടെ അടുത്തു വരും പച്ചക്കറിക്ക് മാത്രം

അത് മേഡം എന്താണെന്നറിയാമോ നമുക്ക് മനസിലായി നിങ്ങൾ സ്ഥിരം വരുന്ന കസ്റ്റമർ ആണെന്നറിയാം പക്ഷെ എന്താണെന്നറിയോ ഇപ്പോൾ സാധനങ്ങൾക്കെല്ലാം വില കൂട്ടിയതു കൊണ്ടേ പച്ചക്കറിയൊന്നും കർണാടകയിൽ നിന്ന് ഇപ്പം കണ്ടമാനം വരുന്നില്ല അപ്പം എന്താണെന്നു വച്ചാൽ അതിൻ്റേതായ ഒരു മാറ്റമുണ്ട് എല്ലാത്തിനും വില കൂടി ചെറിയ ഉള്ളിക്കും വെളുത്തുള്ളിക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ആയിരം രൂപക്ക് നൂറുരൂപ വച്ച് ഡിസ്കൗണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ സ്ഥിരം ഇവിടുന്ന് എല്ലാ സാധനവും നിങ്ങൾ വാങ്ങുന്നവരാണല്ലോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തരാം അപ്പം ആയിരത്തിൻ്റെ രണ്ടായിരത്തിന് അടുത്തു വരും പച്ചക്കറിക്ക് ഇനി അരിയും സാധനങ്ങളും എല്ലാം കൂടെ വാങ്ങുമ്പോൾ അതൊരു പത്തു മൂവായിരം രൂപയുടെ വരും അപ്പം ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ വരില്ലേ ആ അപ്പം എന്നാൽ എല്ലാം പാക്ക് ചെയ്തു വച്ചിട്ടുണ്ടാവും കേട്ടോ മാഡം ആ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ വൈകുന്നേരം അഞ്ചു മണിക്ക് എത്തിക്കോളൂ മാഡം താങ്ക് യു